ഹലോ മലപ്പുറത്തിലേ കോയ ബ്രോക്കർ അല്ലേ

എനിക്ക് ഇപ്പം ഒരു മലപ്പുറം ഭാഗത്തായിട്ട് കിട്ടണം ഞാൻ ഇപ്പം താമസം മാറുമ്പോൾ അങ്ങനത്തെ കുറച്ച് സ്ഥലം വേണം എനിക്കിപ്പോൾ വീട് വയ്ക്കാനൊരു അഞ്ച് സെൻറ് മതി കൃഷിക്ക് തന്നെ ഒരു അഞ്ച് സെൻറ് മൊത്തം ഒരു പത്ത് സെൻറ്റിൽ അത് കിട്ടുമോ ചെറിയ വിലയ്ക്ക്

ആ അങ്ങനത്തെ ഒരു ഏരിയ ആണ് നമുക്ക് വേണ്ടത്

ആ കുഴപ്പമില്ല നമുക്ക് ഇത് ഇപ്പം വില എന്താണ് വരുന്നത്

ആ ഞാൻ ആ അഡ്വാൻസ് തരാം അതിപ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്നാണ് ഞാൻ കാണുക ഞാൻ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഒരു ദിവസം നമ്മളുടെ പെരിന്തൽമണ്ണ ബസ് സ്റ്റോപ്പിലേക്ക് ഒന്ന് വരിക നമുക്ക് അവിടുന്ന് ഒന്ന് മീറ്റ് ചെയ്യാം ആ ആ ആ ഓക്കെ ഓക്കെ താങ്ക്യൂ